കേരളത്തിലെ വ്യത്യസ്ത തരം കലകളെ പറ്റി പറയുവാണേല് പല സ്ഥലത്തായി പല രീതിയിലുള്ള കലകളുണ്ട് അപ്പോള് അതില് ചിത്രകലയെ പറ്റി ആദ്യം പറയുവാണെങ്കില് ചിത്രകലയില് ആദ്യം ഉത്ഭവിച്ച ഒരു കലയാണ് ചുമര്ചിത്രം അഥവാ മ്യൂറല് പെയിന്റിംഗ് എന്നും പറയാം അപ്പോള് കേരളത്തില് പഴയ കാലം തൊട്ടുതന്നെ പല വീടുകളിലായാലും കൊട്ടാരങ്ങളിലായാലും ചുമരില് വരച്ചിരിക്കുന്ന ചിത്രങ്ങളെയാണ് ചുമര്ചിത്രം എന്നുപറയുന്നത് അതിലിപ്പോള് പല നിറങ്ങള്ക്ക് വേണ്ടി അവര് ജൈവ പിഗ്മെൻറ്റുകളെല്ലാം ഉപയോഗിച്ചാണ് അവര് വ്യത്യസ്തമായ കളറുകള് ഉണ്ടാക്കുന്നത് പിന്നെ അതിന്റെ ബ്രഷുകള് യൂസ് ചെയ്യുന്നത് പുല്ലോ അഥവാ മരത്തിന്റെ വേരോ ഉപയോഗിച്ചായിരിക്കും അവര് അതിന്റെ പെയിൻറ്റ് ബ്രഷുകള് യൂസ് ചെയ്യുന്നത് പിന്നെ ആഭരണങ്ങളിലോട്ടു വരുവാണേല് പല രീതിയില് ആഭരണങ്ങള് ഉണ്ടാക്കാം അതിലൊന്നാണ് ടെറാകോട്ടാ ആഭരണങ്ങള് അതായത് ഈ മണ്ണിനെ അവര് പല രീതിയിലായി പല ഷെയ്പ്പിലവര് മോഡിഫൈ ചെയ്ത് അതിനെ ഓരോ ആഭരണങ്ങളുടെ രൂപത്തിലേക്ക് ആക്കുന്നു ഇപ്പോള് മാല വള കമ്മല് എന്നീ പറയുന്ന രൂപങ്ങളിലേക്ക് മണ്ണിനെ അവര് മോഡിഫൈ ചെയ്ത് ആക്കുന്നു അതേപോലെതന്നെ ശില്പകലയും മണ്ണുകൊണ്ട് ചെയ്യാറുണ്ട് കേരളത്തില് പണ്ടു തൊട്ടേ മണ്ണിനെ പല രീതിയിലായി പല ഭാവങ്ങളിലായി മാറ്റി പല ശില്പ്പങ്ങള് ദൈവങ്ങളുടെ ശില്പ്പങ്ങളും അല്ലാണ്ട് കാണാന് കൊള്ളാവുന്ന വീട്ടില് വയ്ക്കാന് പറ്റുന്ന ഓരോ തരം ശില്പ്പങ്ങളാക്കിയിട്ടും മാറ്റാറുണ്ട് പിന്നെ വേറെ ഒരു ആഭരണങ്ങളുള്ളതാണ് ഈ ബാംബു കൊണ്ടുള്ള മുളംതണ്ട് കൊണ്ടുള്ള ആഭരണങ്ങള് മുളംതണ്ടിനെ പല ഷേപ്പിലും ഭാവത്തിലും മാറ്റിയിട്ട് അതിനെ ഒരു ആഭരണം എന്ന രീതിയിലോ അല്ലെങ്കില് ആകര്ഷിക്കുന്ന ഒരു വസ്തുവായിട്ടോ ചെയ്യാറുണ്ട് അതാണ് മുളംതണ്ടുകൊണ്ടുള്ള ആഭരണങ്ങള് എന്നും വേണമെങ്കില് അതിനെ പറയാം അതല്ലാണ്ടുതന്നെ വീട്ടില് പായയും ബെഡ് ഷീറ്റും പോലത്തുള്ള സാധനങ്ങള് കൊരപ്പായാന്ന് പറഞ്ഞൊരു സാധനം അതായത് പുല്ലുകൊണ്ട് അതിനെ നെയ്ത് അതിനെ പല രീതിയിലും പല ഡിസൈനിലും ആക്കിയിട്ട് ആകര്ഷിക്കാനും അല്ലാണ്ട് ദിനചര്യ വീട്ടിലെ പ്രവര്ത്തികള് ചെയ്യാനുമായിട്ടും ഉപയോഗിക്കാറുണ്ട് പുല്ലുകൊണ്ട് നെയ്തിട്ട് അപ്പോള് ഇതെല്ലാമാണ് ചില കലകള് കേരളയിലെ